ഞാനൊരു സർട്ട് വങ്ങിന്നു ഓൺലൈനിൽ വരുത്തിയതായിരുന്നു ആ ഷർട്ട് നല്ല രസമുണ്ടെന്ന് വീട്ടുകാരൊക്കെ പറഞ്ഞിനു നല്ല കറക്റ്റ് അളവ് സൈസ്ക്ക നല്ല സൈസ് നല്ല രസമുള്ള ഒരു പുള്ളി സർട്ടായിരുന്നു അത് അത് നല്ല രസമുണ്ട് എന്നിട്ട് തുണിക്കാരൊക്കേ കണ്ടപ്പോൾ ഇങ്ങനെ ചോദിച്ചു ഈ ഷർട്ട് എവിടെന്നു എടുത്തതാണ്ന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഓൺലൈന്ലായിട്ട് വരുത്തിയതാണ് എത്രയായീന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞ് എത്ര ആവുംന്ന് ചോദിച്ചു അവരോട് ഏകദേശം ഇങ്ങൾ കണ്ടിട്ട് എത്രയാവും ഇങ്ങളൊന്ന് അഭിപ്രായം പറന്ന് പറഞ്ഞ് അന്നേരം ഓൾ പറഞ്ഞു അഞ്ഞൂറുപ്പ്യക്കോ ഉണ്ടോ അതിന് ചോദിച്ച് ഞാൻ പറഞ്ഞു അഞ്ഞൂറ് ഒന്നും ഒരു ഇല്ല ഇരുനൂറ്റിയൻപോർപ്പ്യൻറ്റ സർട്ടാണ് അവർ പറഞ്ഞു എന്നാ ഇജ്ജ് നമ്പറ് ഒന്ന് തരൂണ്ടോ ഞങ്ങൾക്ക് ഒന്ന് ഓർഡർ ചെയ്യാനാണ് എത്ര ദിവസം കൊണ്ടാ കിട്ടാന്നൊക്ക അനോഷിച്ചു അവർ ഞാൻ പറഞ്ഞു ഒരു രണ്ടു ദിവസം പിടിക്കും എല്ലാവരും പോണില്യ ഞാൻ വിളിച്ചു പറഞ്ഞിട്ട് രണ്ടീസം കൊണ്ട് വന്നിട്ടുണ്ട് അങ്ങനെ ആ സർട്ട് എലാവർക്കും ഇഷ്ടപ്പെട്ടു വീട്ടുകാർക്കു ഇഷ്ടപ്പെട്ടു ഇനി ഒരു രണ്ടു മൂന്ന് സർട്ട് ഇങ്ങനെ ഓൺലൈന്ൽ വരുത്തണം എന്നുണ്ട് ഓരോ സർട്ടുകളും വരുത്തണം എന്നുള്ളൊരു കമ്പത്തിലാണ് ഇപ്പോൾ ഓൺലൈനില്പ്പോൾ നല്ല നല്ല സാധനം വരാനുണ്ട് അവർ പറഞ്ഞു ഇങ്ങനെ വരൂംന്നുള്ളതൊക്കെ പിന്നെറഞ്ഞാൽ പാൻറ്റ് വേണങ്കിൽ പാൻറ്റ് ഓർഡർ ചെയ്യാന്ന് പറഞ്ഞു ഇനി ടീസർട്ട്കള് കണ്ടനു പറഞ്ഞിട്ടുണ്ട് ഞാൻ ഏതായാലും രണ്ടു സർട്ടും കൂടി ഓർഡർ ചെയ്യണംന്നുണ്ട് ഇപ്പം പൈസ ഇല്ല പൈസണ്ടായിട്ട് വേണം ഓർഡർ ചെയ്യാൻ അങ്ങനെയാണ് നല്ല സെലക്ഷൻണ്ട് ഓര കയ്യിൽ നല്ല സർ സർട്ടുകളാണ് വരണത്